ഇവിടെ ദോശയുണ്ട് മസാലദോശയുണ്ട് പൊറോട്ടയുണ്ട് ചപ്പാത്തിയുണ്ട് കപ്പപ്പുഴുക്കുണ്ട് കറി ബീഫ് ഉണ്ട് മീൻകറിയുണ്ട് കോഴിക്കറിയുണ്ട് പോർക്ക് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട് കുടിക്കാൻ ജൂസ് ഐറ്റംസ്സ് ആപ്പിൾ ജൂസ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് മുന്തിരിയുണ്ട് ജൂസ് ഉണ്ട്

എങ്ങനെയാ പൊറോട്ടയുടെ ബീഫിന്റെ എങ്ങനെയാ പൊറോട്ട മൂന്ന് പൊറോട്ടയാണ് ഒരു പ്ലേറ്റ് അത് മുപ്പതു രൂപ പൊറോട്ട ബീഫ് ഇരുന്നൂറ്റി പത്തു രൂപ മീൻകറി നൂറ്റിയെൺപത് രൂപയാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ്വ് അത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ജൂസ് എന്താ വേണ്ടത് സാറെ പൈനാപ്പിൾ ജൂസ്സ് ഓക്കെ പൈനാപ്പിൾ ജൂസ്സ് എങ്ങനെയാ എല്ലാവർക്കും ആ അപ്പോൾ എനിക്ക് ഒരു ജൂസിന് അറുപത് രൂപ കേട്ടോ അതെ അതെ ആയിക്കോട്ടെ നമുക്ക് അത് ചെയ്യാം കുഴപ്പം ഇല്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ കുഴപ്പം ഇല്ല എല്ലാം ആ ആ ആ അത് അത് കുഴപ്പം ഇല്ല ഇവിടെ നല്ല സാധങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാം ഫ്രഷ് ഇതാക്കി ചൂടാക്കി റെഡിയാക്കിത്തരാം ആ ആയിക്കോട്ടെ അങ്ങനെ ചെയ്യാം ഓകെ ഉടനെ തന്നെ റൂമിലോട്ട് സാധനം എത്തിക്കാം മറ്റ് എന്തെങ്കിലും വെള്ളം ആയിക്കോട്ടെ അപ്പം വെള്ളം ഇരുപത് രൂപ കേട്ടോ ആ വേറെ വേറെ എന്തെങ്കിലും മറ്റ് സ്നാക്ക്സ്സ് എന്തെങ്കിലും വേണോ

ആ അങ്ങനയാണെങ്കിൽ ഓക്കെ ഉടനെ എത്തിക്കാം കേട്ടോ ശരി ശരി ശരി ഉടനെ തന്നെ നമ്മുടെ എൻ്റെ ബോയ് അവിടെ